ഹലോ

ആരാ ആ ശരിയാ ആ ഹാ ഹാ ഹാ അത് ശരി വിളിച്ചു

ആ ഹാ ഹാ ഹാ നിങ്ങൾ രണ്ട് പെരുണ്ടെന്ന് പറഞ്ഞത് ആ എന്റെ അറിവിൽ ഇപ്പം രണ്ട് വീടുണ്ട് സാമാന്യം തരക്കേടില്ലാത്ത രണ്ട് വീടാണ് പിന്നെ നിങ്ങൾക്ക് സമയം ഉള്ളപ്പോൾ എപ്പഴാണെന്ന് വെച്ചാൽ വന്ന് നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമല്ലോ ആ നിങ്ങൾ രണ്ട് പെണ്കുട്ടികൾ അല്ലേ ഉള്ളൂ അതുകൊണ്ട് നല്ല ചുറ്റുപാടാണ് അടുത്ത് നല്ല നല്ല പിന്നെ കുടുംബക്കാരാണ് താമസിക്കുന്നത് അപ്പം അത്യാവശ്യം വെള്ളമുണ്ട് കിണറ്റിലെ വെള്ളമാണ് പൈപ്പ് ലൈനും ഉണ്ട് വെള്ളത്തിനൊന്നും പ്രോബ്ലം ഇല്ല പിന്നെ ഒന്ന് ഒരു രണ്ട് മുറിയും പിന്നെ ഒരു ഹാളും അറ്റാച്ച്ഡ് ബാത്രൂമും ഉള്ള ഒരു റൂമും ഉള്ള ഒരു കിച്ചണും ഒക്കെ ഉള്ള ഒരു വീടാണ് വേറെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മുറിയും അതിന്റെ അനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ള വീടാണ് പിന്നെ വാടക നിങ്ങളുടെ നിങ്ങൾക്ക് എത്രവരെ വാടക പോകും എത്രവരെ ആണെങ്കിൽ ആ നമ്മുടെ ഇവിടെ ഒരു രണ്ട് റൂമിന്റെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഏഴായിരം രൂപയും മൂന്ന് റൂമിന്റെ ഒരു എണ്ണായിരത്തഞ്ഞൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് പിന്നെ ആറായിരം രൂപയ്ക്ക് തരുമോ എന്ന് ഞാന് അവരുടെ ഓണറിനോട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ പറയ് മാക്സിമം എത്ര കുറച്ചെങ്കിലും ചെയ്യാന് ചെയ്ത് തരാന് നോക്കാം പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യം എപ്പഴാണെന്ന് വെച്ചാൽ ഒന്ന് വന്ന് ഒന്ന് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ രണ്ട് വീടുണ്ട് അതും കോളേജിന്റെ നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ നിങ്ങളിവിടെ വന്ന് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൾ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽപ്പിന്നെ നമുക്ക് നിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കില് നമുക്ക് വേറെ ഏതെങ്കിലും അന്വേഷിക്കാം ഏതായാലും വന്ന് നോക്ക് നിങ്ങൾക്ക് എപ്പഴാ സമയം എന്ന് വെച്ചാൽ എപ്പഴാണ് വരാന് പറ്റുന്നത് ആ ഇത് കോളേജീന്ന് നടന്ന് പോകാനുളളൂ കോളേജിലേക്ക് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ ശനിയാഴ്ചയും ഞായറാഴ്ചയും എപ്പഴാ നിങ്ങൾക്ക് വരാനുള്ള സൗകര്യം എന്നനുസരിച്ച് എന്നെ വിളിച്ചാൽ മതി എന്നെ വിളിച്ച് പറയുക ഞാൻ ഏത് എവിടെ വരണം എന്ന് പറയാം അവിടെ വന്നാൽ നമുക്ക് മീറ്റ് ചെയ്തിട്ട് നമുക്ക് പോയി വീടുകൾ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൾ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ വീടാണെങ്കിലും എവിടേലും നോക്കി ഞാന് സെറ്റ് ചെയ്ത് തരാം കുഴപ്പം ഇല്ല ആ നമുക്ക് ഏതായാലും അതിന്റെ ഉടമസ്ഥരോട് ചോദിച്ച് ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാം സംസാരിച്ച് നോക്കാം നമുക്ക് കുറേ എത്രയും കുറച്ച് തരാമോ അത്രയും കുറച്ച് തരാം തരീപ്പിക്കാന് നോക്കാം ഞാൻ നിങ്ങൾ ഏതായാലും ഒന്ന് ഇറങ്ങ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏത് സമയം എന്ന് വെച്ചാൽ ഒന്ന് എന്നെ വിളിച്ചിട്ട് ഒന്ന് ഇറങ്ങ് ഞാൻ കൊണ്ടുപോയി കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം ഓക്കെ ശരി എന്നാൽ മ്മ്